മാതാപിതാക്കൾ നിർബന്ധമായും കുട്ടികളെ പതിനഞ്ച് വയസ് വരെ സ്കൂളുകളിൽ വിടാറുണ്ട് അത് ബുദ്ധിപരമായ കഴിവുകൾ നോക്കിയല്ല കുട്ടികൾ അഞ്ചാമത്തെ വയസ്സ് കഴിയുന്നത് മുതൽ സ്കൂളിൽ പോകണം എന്നുള്ളത് ഒരു നിർബന്ധ ബുദ്ധിയായി ഇത് പേരെൻറ്റ്സ് കാണാറുണ്ട് മാതാപിതാക്കളുടെ ഈ ഒരു പിന്തുണ പിന്നീട് ലഭിക്കുന്നത് അവരെ ട്യൂഷൻ അതുപോലെ തന്നെ മറ്റ് ടൂറുകൾ സ്ഥലങ്ങൾ സെമിനാറുകൾ എന്നിവ പങ്കെടിപ്പിച്ചു കൊണ്ടാണ് പി ടി എ ക്ലാസ്സുകൾക്ക് സ്ഥിരമായി പോകുന്ന അദ്ധ്യാപകരുടെ എല്ലാ അദ്ധ്യാപകരോട് എല്ലാ വിശേഷങ്ങളും കുട്ടികളുടെ ചോദിച്ചറിയുന്ന പേരെൻറ്റ്സ് ഇന്നത്തെ കാലത്തെ സ്ഥിരം കാഴ്ചയാണ് ഏതെങ്കിലും വിഷയത്തിന് കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ അത് വ്യക്തമായും അതിൻ്റെ കാരണം അന്വേഷിക്കുകയും അതുപോലെതന്നെ മാനസിക സമ്മർദ്ദത്തിൽ പെട്ടിരിക്കുന്ന കുട്ടികൾക്ക് മാനസിക മാനസിക ആരോഗ്യ വിദഗദ്ധൻ്റെ സഹായമൊക്കെ നേടി കൊടുക്കുന്ന പേരെൻറ്റ്സിനെയും ഇന്ന് കാണാൻ സാധിക്കും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പേരെൻറ്റ്സ് വളരെയധികം ശ്രദ്ധിക്കുന്നൊരു കാലഘട്ടമായിട്ടാണ് ഈ ഒരു കാലഘട്ടത്തെ കാണാൻ സാധിക്കുന്നത്